ഹലോ ഊബർ ഡ്രൈവർ അല്ലേ ഞാൻ ഒരു കാറിൻ്റെ അവൈലബിളിറ്റിയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്ന വിളിച്ചതാണേ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഇരുപത്തിരണ്ടാം തീയതി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് വേണ്ടത് എന്നുപറഞ്ഞാൽ മറ്റന്നാൾ ഒരു രാത്രി പതിനൊന്ന് മണി പണി മണിക്ക് ഞങ്ങൾ പോയിന്റിൽ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് വേണ്ടത് ലൈക്ക് ഞങ്ങൾക്ക് പോവേണ്ടത് കൊച്ചുവേളി റയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഫ്രം എൻ്റെ വീട് തൈക്കാടാണ് നാല് പേർ പേർക്ക് വേണ്ടിയിട്ടാണ് കാർ വേണ്ടത് തൈക്കാട് ഇലങ്കം നഗർ ഇല്ലേ അവിടെയാണ് ഇലങ്കം നഗർ റെസിഡൻസ് അസോഷൻ അസോസിയേഷൻ്റെ ലൈൻ ജിയിലാണ് അപ്പോൾ ഞങ്ങൾക്ക് മൈസൂരിലോട്ട് ഒരു ട്രെയിൻ ഉണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് ഇരുപത്തി രണ്ടാം തീയതി അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ വന്നാൽ മതിയായിരിക്കും അങ്ങനെ എത്രയാവും റേറ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് വിളിച്ചത് ആൻ പിന്നെ ലഗേജസ് ഉണ്ടാവും അപ്പോൾ ലഗേജസ് ക്യാരി ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവുമോ എന്ന് കൂടെ അന്വേഷിക്കാനാണ് വിളിച്ചത് പിന്നെ എത്ര മണി ആവുമ്പോഴത്തേക്ക് വരുമായിരിക്കും പത്ത് മണിക്ക് മുമ്പേ വരാൻ പറ്റുമോ എന്നാൽ ഇല്ലെങ്കിൽ ലേറ്റ് വല്ലതും ആവുകയാണെങ്കിൽ ട്രെയിൻ ഒക്കെ മിസ് ആയി കഴിഞ്ഞാലേ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അപ്പോൾ ഒരു പത്ത് പത്ത് മണി ഒരു പത്ത് മണിക്ക് മുമ്പ് ഒരു ഏഴ് തൊട്ട് ഏഴിന് ശേഷം എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരിക്കും പിന്നെ അതുപോലെ തന്നെ അഡ്രസ്സ് എന്ന് പറയുന്നത് ടി സി ഇരുപത്തെട്ട് ബാർ വൺ നയൻ വൺ ടു ലാവണ്യ ടി എൻ ആർ എ വൺ ഫിഫ്റ്റി ഫോർ ഇലങ്കം നഗർ തൈക്കാട് പി ഒ ആണ് തി തിരുവനന്തപുരം ആണ് ഡിസ്ട്രിക്ട് വരുന്നത് അപ്പോൾ ഈ ഡ്രൈവറിൻ്റെ ഫോൺ നമ്പറും ഡീറ്റൈൽസും കാര്യങ്ങളൊക്കെ അയച്ചുതരുമോ നിങ്ങൾ എങ്ങനെയാണ് സമയം കാര്യങ്ങളും ഒക്കെ